എഴുത്ത് എന്നും ഒരു സങ്കീർണമായ പ്രശ്നം തന്നെയാണ് കേവലമായിട്ടുള്ള അറിവിൽ നിന്നും നമുക്ക് എഴ് എഴുതാൻ സാധിക്കത്തില്ല എഴുത്തിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എഴുതാനായിട്ടുള്ള ആയുധങ്ങള് ആശയങ്ങള് സംഭരിക്കേണ്ടതുണ്ട് എഴുത്ത്

പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഴിവാണ് കലാരൂപമാണ് അപ്പോള് അതില് വ്യാകരണത്തിൻ്റെ ഘടനയും സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും അതെല്ലാം നമ്മൾ പാലിക്കുകയും ചെയ്യണം സർഗാത്മകതയ്ക്ക് വീഴ്ച വരാത്ത രീതി സർഗാത്മകത വശങ്ങള് ഏറ്റവും മനോഹരമായ രീതിയിലവതരിപ്പിക്കാനും കഴിയണം അപ്പോള് വ്യാകരണവും ഘടനയുമൊക്കെ സാങ്കേതിക വശങ്ങളാണ് പക്ഷെ അവയെക്കുറിച്ചുള്ള അറിവ് നമുക്കു വേണം അവ ഒരിക്കലും നമുക്ക് സർഗാത്മകമായ ചിന്തകൾക്കോ ആശയങ്ങൾക്കോ വിഘാതം സൃഷ്ടിക്കാതിരിക്കാന് ശ്രമിക്കുകയും ചെയ്യണം അപ്പോള് ഇതിനെ രണ്ടിനേയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുകയെന്നു പറയുന്നത് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് അത് നല്ല പരിജ്ഞാനം അതിനാവശ്യമുണ്ട് പരിശീലനവും ആവശ്യമുണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് ഔദ്യോഗികമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മള് ചില പത്ര സ്ഥാപനങ്ങളിലും ചില മാസികകളിലൊക്കെ പ്രത്യേകിച്ചൊക്കെ നമ്മള് ആ രീതിയിൽ നമ്മള് ആർട്ടിക്കിളുകളൊക്കെ എഴുതുകയും ഇപ്പോള് ധാരാളം ആർട്ടിക്കിളുകള് പ്രൂഫ് റീഡ് ചെയ്യുകയും പഠിക്കുകയും അതിനകത്തെ കറക്ഷൻസൊക്കെ വരുത്തുവേ ചെയ്തുപോരുന്നതുകൊണ്ട് ഈ ഈ രംഗത്ത് ഒരുവിധം അതിനെക്കുറിച്ചൊക്കെ ഒരു സാമാന്യമായ അറിവ് ഇപ്പോള് ലഭിച്ചിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ അപ്പോള് ക്രിയേറ്റീവ് റൈറ്റിങ് കോഴ്സൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ പഠിച്ചിട്ട് വേണം ആണ് തന്നെയാണ് നമ്മള് എഴുതേണ്ടതെന്നാണെൻ്റെ അഭിപ്രായം പക്ഷേങ്കിലും അനുഭവത്തിലൂടെ അനുഭവ സമ്പത്ത് ഇപ്പോള് മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന പരിചയമുള്ളതുകൊണ്ടും വായനാപരിചയമൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ വിശാലമായിട്ടുള്ള വായനകളൊക്കെ ലഭിച്ചിട്ടുള്ളതു കൊണ്ടൊക്കെ നമുക്കൊരു പരിധിവരെ ചെറിയ രീതിയിൽ നമക്ക് ഈ എഴുത്തിനെ നമുക്ക് മുന്നോട്ടുകൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്